എൻ്റെ ജോലി സ്ഥലത്ത് ഞാനൊരു പരിപാടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പം അത് ഓരോ വർഷവും ഓരോ വ്യക്തികളാണ് ആ ചുമതല ഏറ്റെടുക്കാറുള്ളത് വർഷങ്ങൾ വർഷത്തില് മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം അതിൻ്റെ ഒരു സംഘടനഇടനായാടിലും എല്ലാം ഭാരവാഹികളെ വിളിച്ച് കൂട്ടലുമെല്ലാം എൻ്റെ ചുമതല തന്നെയായിരുന്നു അപ്പൊൾ അതില് എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള ആ ഒരു ഒത്തുചേർക്കാനുള്ള ഇത് നിരവധി ബുട്ടിമുട്ടായിട്ടുണ്ടായിരുന്നു കരണം എല്ലാവരേയും വിളിക്കണം ഒരു വ്യക്തിനെ പോലും മറക്കാതെ എല്ലാരും വിളിക്കാനുള്ള ആ ഒരു ഇതും പിന്നെ അതിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു വിശിഷ്ട അതിഥിയെ ആരാണെന്ന് തിരഞ്ഞെടുക്കാനും അവരുമായിട്ട് ബന്ധപ്പെട്ട അവര് പരിപാടിലേക്ക് ക്ഷണിക്കാനും ഉള്ള ഒരു നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു കാരണം അതിനോട് ആ പരിപാടിയുമായിമായിട്ട് യോഗ്യനായ ഒരു വ്യക്തിയെ കിട്ടുക എന്നത് നല്ലൊരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാ അറിവുകളും ജീവിതാനുഭവങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയെ തന്നെ എനിക്ക് ആ ഒരു പരിപാടിക്ക് കൊണ്ട് വരണംന്ന് ഉണ്ടായിരുന്നു അപ്പൊൾ ആ പരിപാടി നടത്താൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള പണവും എല്ലാം നേടാൻ വേണ്ടീട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നിരവധി പേരുടെ അടുത്ത് സഹായം അഭ്യർഥിച്ചു അപ്പം അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണം നൽകാനായിട്ട് കുറെ പേര് വിസമ്മതിച്ചിരുന്നു ഒടുവിൽ പലരും സഹായിച്ചത് കൊണ്ട് ആ പരിപാടി നല്ല രീതിക്ക് നടത്താനുള്ള ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു